ഇപ്പോൾ നമ്മടെ മെഷീൻ വിവർത്തനം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ നമ്മള് ഗൂഗിൾ മാപ്പ്കള് ഒരു വഴിക്കിങ്ങനെ നമ്മള് റൂട്ടറിയാത്ത വഴികളൊക്കെ പോകുമ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് സാധാരണ ഉപയോഗിക്കാറുണ്ട് ആ എത്രത്തോളം കൃത്യമാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇപ്പ ചില സമയത്ത് അവര് പറയുന്ന വഴി തെറ്റാറുണ്ട് കാരണം ചിലപ്പോൾ അവരുടെ വേരെന്തേലും പ്രശനം കാര്യങ്ങള് കൊണ്ട് ചില സമയത്ത് വഴി തെറ്റാറുണ്ട് ഇങ്ങനെ ഒരു എൺപത് ശതമാനത്തോളം നമുക്ക് വഴി അതായത് ആ റൂട്ട് കറക്റ്റാണെന്ന് പറയാൻ പറ്റും ഇപ്പം നമ്മള് ഗ്രാമപ്രദേശങ്ങളില് പോയികഴിഞ്ഞാൽ മുഴുവനായിട്ടത് ശരിയാകണണില്ല ചിലപ്പോൾ ഇവര് കാണിക്കുന്ന വല്ല ലാസ്റ്റ്ത്ത്ന്ന് പുഴയിലേക്കോ അങ്ങനെ എന്തെങ്കിലും ട്വിസ്റ്റ് കാര്യ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് എങ്കിലും ബാക്കി ടൗൺ ഏരിയകളിലൊക്കെ നമ്മള് നോക്കണ് പറഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ് പക്ഷെ ഗ്രാമപ്രദേശങ്ങളില് ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ സാറ്റലൈറ്റിൻ്റെ കാര്യങ്ങള് പ്രശനങ്ങള് മൂലം കൊണ്ട് ചില സമയത്ത് നമുക്ക് വഴിയൊക്കെ നമുക്ക് തെറ്റാറുണ്ട്